ആ ഹലോ ഞാൻ വിളിക്കുന്നത് എൻ്റെ ഓഫീസിലെ കുറച്ച് ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ഒരു സെഗ്രിഗേഷനു വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്നു പറഞ്ഞാൽ ഇനി ഞാൻ എനിക്കൊരു ഇലക്ട്രോണിക്സ് കമ്പനിയുള്ളു അപ്പോൾ ആ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ കുറേ കുറേ ഉപകരണങ്ങൾ കുറച്ചത് ബൾക്ക് കുറച്ച് ബൾക്കായിട്ടായിരുന്നെ ഇരിക്കണത് അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ വേസ്റ്റ് പിക്കപ്പ് അപ്പം ഈ വേസ്റ്റൊക്കെ ഒന്നെനിക്ക് നവീകരിക്കാൻ പ്ലാനുണ്ടായിരുന്നു അപ്പം നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അപ്പം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായതിൽ നിങ്ങളെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമോ